ഞാൻ ഒരു ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചുരിദാർ പിന്നേ നോക്കിയപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു വില ഇത്തിരി ഓവർ ആണെങ്കിലും കുഴപ്പമില്ല കാണാന് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചുരിദാർ ഓർഡർ ചെയ്തത് അതൊരു കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു വാങ്ങിയത് ഏതായാലും ചുരിദാർ വന്നു പിന്നെ ചുരിദാർ ഓർഡർ ചെയ്തിരുന്ന ചുരിദാറെത്തി നോക്കിയപ്പോൾ വന്നു നോക്കിയപ്പോൾ ചുരിദാർ വിചാരിച്ച ആ കളറേ അല്ല ഒരു നരച്ച കളറായിരുന്നു പിന്നെ കാണാനും ആ വര്ക്കൊന്നും ആ ഇത് വര്ക്കും കാര്യങ്ങളും കണ്ടിട്ടാണ് രണ്ടായിരം രൂപ ആയാലും വേണ്ടിയില്ല വിചാരിച്ചിട്ടാണ് ചുരിദാർ എടുത്തത് ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിന്റെ വര്ക്കൊന്നും ഒരു ഒന്നിനും പറ്റാത്ത അത്രയും ഒരു ഇത് ഭംഗിയില്ലാത്ത ഒരു പിന്നെ വര്ക്കായിരുന്നു പിന്നെ ഷാളൊക്കെയാണെങ്കിൽ അതിന്റെ പിന്നിപ്പിന്നി നിൽക്കുന്നുണ്ടായിരുന്നു അത് ഇനി തുണി പഴകിയിറ്റാണോന്ന് എന്താണെന്നറിയില്ല ഞാൻ ഓർഡർ ചെയ്യാന് നേരത്ത് നോക്കിയപ്പോൾ നല്ല നല്ലൊരു ചുരിദാറായിട്ടാണ് തോന്നിയത് കല്യാണത്തിനൊക്കെ ഇടാന് പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ചുരിദാറായിട്ട് എനിക്ക് തോന്നിയത് എല്ലാവരേയും കാണിച്ചു കൊടുത്തപ്പം കുഴപ്പമില്ല നല്ല ചുരിദാറാണ് ഓഡ്ർ ചെയ്തോ പറഞ്ഞു വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു പിന്നെ കൂട്ടുകാരികൾകൊക്കെ കാണിച്ചു കൊടുത്തപ്പം എല്ലാവരും പറഞ്ഞു നല്ലതാണ് കല്യാണത്തിനൊക്കെ ഇടാന് നല്ല കളറാണ് നാന്നായിച്ചേരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചുരിദാറെടുത്തത് ആ ചുരിദാറെടുത്ത് പിന്നെ ഇവിടെ വന്നു കൊണ്ടു വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ പിന്നെ ഇനി ഇപ്പം എന്താണ് ചെയ്യുക വിചാരിച്ച് കല്യാണത്തിനിട്ടു കല്യാണത്തിനിട്ട് അവിടെച്ചെന്ന് കല്യാണത്തിന് പോയപ്പം ഇത് എവിടെ നിന്ന് മേടിച്ചത് ചുരിദാർ ചോദിച്ചെല്ലാവരും പിന്നിന്റെ തുണിയൊക്കെ പറ്റെ മോസാൺല്ലോന്ന് പറഞ്ഞൂ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓഡർ ചെയ്തതാണ് അപ്പോൾ അവിടെ നിന്ന് എന്തോ ഓർഡർ ചെയ്തതെന്തൊണ് അപ്പോൾ നോക്കിയില്ലേ ശരിക്ക് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ആ നോക്കിയപ്പം നല്ല ചുരിദാറയിരുന്നു കണ്ടപ്പോൾ ഇവിടെ എത്തി നോക്കിയപ്പോഴാണ് ഇത് ഇത്ര വലിക്ക് രണ്ടായിരം രൂപൻ്റെ വിലക്കുള്ള ചുരിദാറൊന്നും ഇത് ഇല്ല ഇത് പറ്റെ പറ്റ മോശമാണ് പൺ പിന്നെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് പറ്റെ ഇതായിയൊ ആ പൈസ വെറുതെ പോയി എന്ന് പറഞ്ഞു ഇനി ഇപ്പം എന്താണ് ചെയ്യുക ഏതായാലും ഓർഡർ ചെയ്തില്ലെ ഇടുകയും ചെയ്തു ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഇങ്ങെ